ഇപ്പോഴത്തെ കാലത്ത് യുവജനങ്ങൾക്ക് കായിക രംഗത്തും പിന്നെ പങ്കെടുക്കുവാൻ വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കുന്നില്ല പിന്നെ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളോ അതിനുള്ള പണമോ ഒന്നും നമുക്ക് ലഭ്യമല്ല ഇപ്പോഴത്തെ കാലത്തെ ഒരു കായിക താരങ്ങൾക്ക് നമുക്ക് പണം അല്ലെങ്കിൽ എന്താണ് സൗകര്യങ്ങളും ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല നമുക്ക് നമ്മുടെ കഴിവുകളെ നമ്മൾ പുറത്തെടുക്കാൻ നമുക്ക് ഒരാളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കഴിവുകൾ നമുക്ക് പുറത്തെടുക്കാൻ നന്നായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് അത് വളരെ അധികം കുറവാണ് ഇത് സൗകര്യങ്ങളില്ല ഒന്നാമത് നമുക്ക് കായിക ഇപ്പോൾ ഓട്ടം ഹണ്ട്രഡ് നൂറ് മീറ്റർ ഹോ ഓട്ടത്തിനായലും നമുക്ക് ഓ ഓടി പരിശീലിക്കാനുള്ള നമുക്ക് ഒരു സ്ഥലങ്ങൾ നമുക്ക് സൗകര്യങ്ങൾ ലഭ്യമല്ല ഇപ്പോഴത്തെ കാലത്ത് ജനങ്ങൾക്ക് അത് ഏറ്റവും എടുത്തുപറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടുതന്നെയാണ് അതിന് യുവജനങ്ങൾക്ക് കായിക ഇനങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നത് ഒരു നമ്മുടെ അത് നമുക്ക് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പായാനും ഒരു ഇത് ഉണ്ടാകും അല്ലാണ്ട് നമുക്ക് നമ്മളെ എല്ലാവരും അടിച്ചമർത്തുകയാണ് നിന്നെക്കൊണ്ടത് പറ്റില്ല പിന്നെ നീ അത് ചെയ്താൽ ശരിയാവില്ല നിനക്കത് കിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താണ് പറയുക ആ ഒരു ഇത് നഷ്ടപ്പെടും നമ്മുടെ നമ്മൾ ജയിക്കും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് നഷ്ടപ്പെടും അതും അതിനപ്പുറം നമ്മളിപ്പം ആ നീ ജയിച്ചു വാ അല്ലെങ്കിൾ അങ്ങനെ ഒക്കെ എന്തെങ്കിലും പറയുവാണെങ്കിൽ നമുക്ക് ജയിക്കാനുള്ള ഒരു ഇതുണ്ടാകും അതുകൊണ്ട് നമ്മൾ എന്ത് വേണം നമ്മൾ മാനസികമായിട്ട് നമ്മളെ ഇത് ചെയ്യുമ്പോൾ നമുക്കത് പറ്റില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ തോറ്റാലും കുഴപ്പമില്ല നമുക്ക് പ്രോത്സാഹനം ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും നമുക്കത് തരണം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് അതിനുള്ള സൗകര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളീ ഇരുനൂറ് മീറ്റർ നൂറ് മീറ്റർ ഓടേണ്ട ഒരാൾക്ക് നമുക്കതിന് സൗകര്യങ്ങളില്ല എന്താണ് പരിശീലനം നടത്താൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ അതൊന്നും നമുക്ക് ഇപ്പോൾ ഇല്ല അത് നമുക്ക് എടുത്ത് പറയേണ്ടതാണ് നമ്മൾ വലിയ വലിയ നമ്മൾ നാട്ടും പ്രദേശങ്ങളിലെ കുട്ടികൾക്കാണ് അത് ഏറ്റവും ഇല്ലാണ്ട് വന്നത് വലിയ വലിയ ആളുകളുടെ മക്കൾക്കും ഇതെല്ലാം നമുക്കിപ്പോൾ ഉണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൻ പുറത്തിലെ കൊച്ചു മക്കൾക്കാണ് അല്ലെങ്കിൾ നമ്മുടെ മക്കൾക്ക് നമുക്കത് പറ്റുന്നില്ല നമുക്ക് കായിക രംഗത്ത് നമുക്ക് ചിലപ്പം വീട്ടിലെ സാഹചര്യം ആയിരിക്കും അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ കൊണ്ടുപോവാൻ ആരുമില്ല അല്ലെങ്കിൽ നമുക്കത് പരിശീലനം നടത്താൻ വേണ്ടി നമുക്ക് ആരുമില്ല അങ്ങനത്തെ കുറേ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടുതന്നെയാണ് നമുക്കത് പറ്റാണ്ട് വരും നമുക്ക് നമുക്ക് നല്ല നല്ല പ്രോത്സാഹനം അല്ലെങ്കിൽ അല്ലാണ്ട് സൗകര്യങ്ങളുമുണ്ടെങ്കിൽ നമ്മൾ നല്ല നല്ല നിലയിൽ എത്തുന്ന ചില ആളുകളുണ്ട് നമുക്ക് പ്രോത്സാഹനത്തോടെ പ്രോത്സാഹനം ഇല്ല ഇല്ലാഞ്ഞിട്ട് നമ്മൾ ഈ കായിക രംഗത്തിലേക്ക് വരാൻ നമുക്ക് പറ്റാത്തത് ഒത്തിരി പേരുണ്ട് നമുക്ക് പ്രോത്സാഹനം ഇല്ലാണ്ട് നമ്മളെ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് വരുമ്പോൾ അത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നോക്കം നിൽക്കും അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ കായിക രംഗത്തുള്ള നമ്മൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക അവർക്ക് നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അതൊക്കെ ചെയ്യുക നമ്മൾ നമ്മൾ മാക് നമ്മൾ മാക്സിമം അതായത് നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുവെച്ച് കഴിഞ്ഞാൾ അവർ ആ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടാകും അത് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നല്ല നല്ല നിലയിലെത്തും അപ്പോൾ നമ്മളൊരു നമ്മുടെ പ്രോത്സാഹനം അതായത് നന്നായി കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് നിന്നെക്കൊണ്ട് പറ്റും എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി നമുക്ക് അതൊരു വലിയ ആത്മവിശ്വാസമാണ് ആത്മവിശ്വാസം കിട്ടിക്കഴിഞ്ഞാൾ നമുക്ക് എവിടെ എന്തും ചെയ്യാൻ പറ്റും അപ്പോൾ വലിയ വലിയ നിലയിലെത്താൻ പറ്റും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ പല സ്ഥലങ്ങളിലായി നമ്മൾ കുട്ടികൾ കളിക്കാൻ ചെല്ലുമ്പോൾ അവർ പറയുന്നു ആട്ടിയോടിക്കുന്നൊരു രീതി കാണുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് അവരെ ആട്ടിയോടിക്കുകയാണ് അയ്യേ നീയൊക്കെ ഓടിയിട്ട് എന്ത് നേടാനാണ് അങ്ങനത്തെ ഒരു മെൻറാലിറ്റി ഉള്ളവരാണ് അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളവരാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ യുവജനങ്ങൾ കായിക രംഗത്ത് പങ്കെടുക്കുവാൻ വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്നും സൗകര്യങ്ങൾ ലഭ്യമല്ല എന്നും ഞാൻ പറയുന്നത്